ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യുക അങ്ങനെ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ക്ലാസ്സുകള് പിന്നെ അച്ചപ്പം നുറുക്ക് പലഹാരങ്ങളുണ്ടാക്കുന്ന നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് നമുക്ക് പിന്നെ നാല് ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുണ്ടാകും അങ്ങനെ പോയതാണ് അച്ചാറുണ്ടാക്കാനും കേക്കുണ്ടാക്കാനും പിന്നെ ജാമ് സ്ക്വാഷ് അങ്ങനെയുള്ള കുറെ സാധനങ്ങള് നമ്മുടെ ചക്ക പിന്നെ അങ്ങനെയുള്ള മാങ്ങ പോലുള്ള സാധനങ്ങളിൽ നിന്ന് എങ്ങനെയുണ്ടാക്കാം പാഷൻ ഫ്രൂട്ട് പോലുള്ള സാധനങ്ങളിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എനിക്കിഷ്ട്ടാണ് പഠിക്കാൻ ഞാനാഗ്രഹിച്ചൊരു കാര്യമാണ് കുക്കിങ് ഇഷ്ട്ടമല്ലാത്ത ആരാ ഉള്ളത് ഏതൊരു വീട്ടമ്മയും ജോലിക്ക് പോകാത്ത വീട്ടമ്മക്കും മക്കൾക്കും മരുമക്കൾക്കും പിള്ളേർക്കും ഭർത്താവിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്കും ഞാനാസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കുക്കിങ്ങ് കാരണം ഭയങ്കര റീലാക്സായിരിക്കും നമ്മുടെ മൈൻഡ് ആ സമയത്ത് നമ്മളൊരു സാധനം ഉണ്ടാക്കി എല്ലാവരും സന്തോഷത്തോടെ തിന്നുമ്പോൾ നമ്മുടെ വയറും നിറയും തിന്നവരുടെ വയറ് നിറയും അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കും ഞാനച്ചാറ് ക്ലാസ്സിലൊക്കെ മിസ്സ് ചെയ്യാതെ പോകും അച്ചാറ് ഉണ്ടാക്കുന്നത് എനിക്കൊരു എന്താ പറയുക ചെറുതായിട്ട് ഞാനച്ചാറൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അയൽവക്കത്തും ഇങ്ങനെയുള്ളവരൊക്കെ വാങ്ങുന്നുണ്ട് ഇല്ലെങ്കില് ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാര് അച്ചാറുണ്ടാക്കാൻ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എനിക്കിഷ്ട്ടമാണ് അങ്ങനെയാണ് ഞാൻ പഠിക്കാന് പഠിക്കാനൊക്കെ പോയത്